അപ്പം നമ്മുടെ വേനൽമഴ കഴിഞ്ഞിട്ട് ഏകദേശം വേനൽമഴ ഉദ്ദേശിക്കുന്നത് മൺസൂൺ കാലാവസ്ഥ അതായത് ഇപ്പോൾ ഒരു ജൂൺ ജൂലായ് അതൊക്കെ ഒരു അതൊക്കെ ആയിക്കഴിയുമ്പോൾ ഞങ്ങളെ സംമ്പന്ധിച്ച് ഞങ്ങൾ നെൽകൃഷി ഫസ്റ്റ് നെൽകൃഷി തുടങ്ങും പക്ഷേ ഇപ്പോൾ ഒക്കെ ആദ്യം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടത്തെ പഴമക്കാർ പറഞ്ഞതനുസരിച്ച് ചിങ്ങമാസത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഈ പുതുനെല്ല് വെച്ചിട്ടാണ് അതായത് ആ അപ്പോൾ ആ വിളവ് വിളവിറക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചിങ്ങം കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് കൊയ്ത്ത് വരുന്നത് അത് വരുന്നത് അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അടുത്ത നെൽകൃഷി നെൽകൃഷി ഇറക്കുന്നു അതുപോലെ തന്നെ വളപ്പുകളിൽ നമ്മൾ പച്ചക്കറി കൃഷികളും തുടങ്ങുന്നുണ്ട് പിന്നെ അതിന് ശേഷം ആ ഒരു ഇത് കൃഷി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ചിങ്ങം കഴിഞ്ഞ് ആ ഒരു ഡിസംബർ മാസങ്ങളിൽ രണ്ടാമത്തെ വട്ടവും കൃഷി ഇറക്കും നെൽകൃഷി പിന്നെ അപ്പോഴേക്കും വേനൽക്കാലം വരും അപ്പൊൾ മൂന്നാമത്തെ ഇതിൽ കൃഷി ഇറക്കാൻ നെൽകൃഷിക്ക് വേനൽകാലത്ത് നെൽകൃഷിക്കുള്ള സാധ്യത ഇല്ല അതായത് രണ്ട് രണ്ട് പ്രാവശ്യമാണ് ഒരു വർഷത്തിലേക്ക് രണ്ട് രണ്ട് പ്രാവശ്യമാണ് നമ്മൾ കൃഷി ഇറക്കുന്നത് മൂന്നാമത്തെ ആ ഒരു ടൈം വരുമ്പോൾ ആ കാലയളവിൽ നമ്മൾ പാടത്ത് പച്ചക്കറികൾ അതായത് എന്താണ് പറയുക ഇപ്പൊൾ പയറോ ചീര അങ്ങനെയുള്ള പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ഡിസംബർ മഞ്ഞുമാസം ഈ ഡിസംബർ ആ മാസങ്ങളിലൊക്കെ നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ക്യാബേജ് പിന്നെ എന്താണ് അങ്ങനെയുള്ള കൃഷി ക്യാബേജ് കോളിഫ്ളവർ അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലായിട്ട് ആ സമയത്ത് ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഏത് കാലത്തും എന്ത് കൃഷിയും ചെയ്യാവുന്നൊരു സിറ്റുവേഷൻ ആണ് കാരണം നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഇപ്പോൾ കാലാ ഓരോ കാലാവസ്ഥയ്ക്ക് ആ കാലവസ്ഥകൾ മാറുന്നതിനനുസരിച്ചുള്ള വിളകൾ നമ്മൾ മാറി മാറി പരിശീലിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വർഷത്തിലെല്ലാ ഇതും എല്ലാ വർഷവും നമുക്ക് സുലഭമായിട്ട് പച്ചക്കറികൾ കിട്ടികൊണ്ടിരിക്കുകയാണ് കാരണം ഈ കാലവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുത്തു നിൽക്കാൻ പറ്റിയ നല്ല സങ്കരയിനം വിത്തുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അതും നമ്മുടെ കാർഷിക മേഖലയിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കാർഷിക സർവ്വകലാശാലകളൊക്കെ അത് വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്കൊരു കാലാവസ്ഥ അനുസരിച്ചുള്ള വിളകൾ എന്നുപറയുന്നത് ഇപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ വിളകളും ഇപ്പോൾ എല്ലാ സമയത്തും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ലഭ്യതയനുസരിച്ച് പിന്നെ ഇത്തിരി പിറകോട്ട് പോയിക്കിടക്കുന്നത് നെൽകൃഷിയാണ് അതുതന്നെ അതാണ് പിന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് അങ്ങനെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇപ്പോഴത്തെ കാ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ കാരണം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞത് പോലെത്തന്നെ നമ്മളതിന് കാലാവസ്ഥാ വ്യതിയാനത്തിന് ചെറുത്തു നിൽക്കാൻ പറ്റുന്ന വിത്ത് ഇനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സമയത്ത് വേണെമെങ്കിലും പച്ചക്കറികളൊക്കെ നമുക്ക് ഉൽപാദിപ്പിക്കാവുന്നതാണ്